ഇന്നത്തെ കൃഷി രീതി എന്ന് പറയുന്നത് ഭയങ്കര മാറ്റമാണ് നമ്മുടെ പണ്ടത്തെ കൃ പാരമ്പര്യ കൃഷി രീതി ഒന്നും അല്ല അന്ന് ഇന്ന് എന്താ പറയുക നമ്മുടെ ടെക്നോളജീസ് വളർന്നതു കൊണ്ട് തന്നെ ഇപ്പം പാരമ്പര്യ രീതിയിൽ ഒന്നും അല്ല നമ്മൾ കൃഷി പണ്ട് കലപ്പയൊക്കെ ഉപയോഗിച്ചിരുന്നു മണ്ണിനെയൊക്കെ ഉഴുതുമറിച്ച് ഇന്ന് ട്രാക്ടർ വരാൻ തുടങ്ങി പല വണ്ടികൾ ഉപയോഗിച്ചുകൊണ്ട് പല ടെക്നിക്കുകൾ ഉപയോഗിച്ചു നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ അന്ന് നമ്മൾ നമ്മുടെ എന്താ ബയോ കെമിക്കൽ ഫെർട്ടിലൈസേർസ് മാത്രമേ നമ്മൾ ഉപയോഗിച്ചിരുന്നുള്ളൂ നമ്മുടെ വ ചാണകം അങ്ങനെയുള്ള വളങ്ങളായിരുന്നു നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് ഒരുപാട് കെമിക്കൽ ഫോർട്ടിലൈസർസ് ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ നമ്മുടെ മണ്ണിൻ്റെ ഫലപുഷ്ടത നശിപ്പിക്കുന്ന രീതിയിലാണ് ഇവർ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ കൃഷി രീതി എന്നു പറയുന്നത് കാലാകാലങ്ങളായിട്ടുള്ള നമ്മൾ ഓരോ കാലങ്ങളിലേക്ക് എത്തുന്തോറും നമ്മുടെ കൃഷി രീതി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെതന്നെ ഇപ്പം കൃഷിയിലോട്ട് ആൾക്കാർ ഇറങ്ങുന്നത് തന്നെ കുറവാണ് ഇറങ്ങിയാലും അവരീ കെമിക്കൽ ഫെർട്ടിലൈസേർസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മണ്ണിനെ ഇല്ലാതാക്കി കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കൃഷി രീതി ഇനി ഒരു കുറേ കൊല്ലം കൂടി കഴിയുന്ന സമയത്ത് നമ്മുടെ കൃഷി കൃഷി എന്ന് പറയുന്നത് ശരിക്കുമൊരു വാക്ക് മാത്രമായിട്ട് ഒരു ഹിസ്റ്ററി പോലെ ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ മാത്രമായിട്ട് മാറാൻ പോണ് ഈ കൃഷി എന്ന് പറയുന്നത്